വളരെ കാലമായിട്ട് ഡിജിലോക്കർ യൂസ് ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു ആറുമാസത്തോളമായി അപ്പോൾ എൻ്റെ ആധാർ റേഷൻ കാർഡ് എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് അതുപോലെയുള്ള എൻ്റെ വേണ്ടപ്പെട്ട രേഖകളെല്ലാം ഞാൻ ഇതിലേക്കാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അതാകുമ്പോൾ എനിക്ക് അക്ഷയയിലും അതുപോലെയുള്ള ഓരോ സെൻ്ററിൽ സെൻറ്ററുകളിലും ഈ എൻ്റെ രേഖകൾ ആവശ്യമുള്ള ഓരോ സ്ഥലങ്ങളിൽ പോകാൻ നേരത്തും എനിക്കു ഫോൺ മാത്രം മതി ഈ ഡിജിലോക്കറിലിൽ നിന്ന് കോപ്പിയെടുത്ത് അവിടെ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യാനുള്ളതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം കാരണം ആറുമാസം പരിചയം എനിക്കുണ്ട് അതുകൊണ്ടെനിക്കിതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയാം ഇതിനകത്ത് ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാൻ അറിയാം അതുപോലെയുള്ള പേര് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും മാറ്റാനെനിക്കറിയാം അപ്പോൾ മറ്റൊരാളെ സഹായിക്കാനും എനിക്ക് ഞാൻ പ്രാപ്തനാണ് ഇത്ര ആറുമാസത്തോളം ഉപയോഗിച്ചതിനാണ് എനിക്ക് അതിലെ അതിലെ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ രേഖകളും എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും അതുപോലെത്തന്നെ ഈ ആധാർ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വരെ ബാക്കിയുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാനെനിക്ക് സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്കും എനിക്കു പറഞ്ഞു തരാൻ പറ്റും നിങ്ങളുടെ ഫോൺ എന്നെ എന്നെ എന്നെ വിശ്വസിച്ചു കൈമാറുകയാണെങ്കിൽ ഞാനിത് നിങ്ങൾക്കു പറഞ്ഞിരുന്നതാണ്